വിദ്യാർത്ഥികൾ പലപ്പോഴും വിദേശ പഠനമാണ് താല്പര്യപ്പെടുന്നത് കാരണം അവിടെ നമ്മുടെ നാട്ടിലെ ജോലി മേഖലകളേക്കാളും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് പുറം രാജ്യങ്ങളിൽ നിന്നാണ് അതു കൊണ്ടു തന്നെ അവർ കൂടുതലും തിരഞ്ഞെടുക്കുന്നത് പുറത്തോട്ടുള്ള മേഖലകളാണ് ഇപ്പോൾ കൂടുതലായും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന മേഖല ജർമ്മൻ ഭാഷ പഠിക്കലാണ് ജർമ്മനിയിലേക്കാണ് എല്ലാവരും കൂടുതലായും തിരഞ്ഞെടുക്കുന്നത് കാരണം അവരുടെ ശമ്പളം ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ കേരളത്തിലേക്കാളും രണ്ടിരട്ടിയാണ് വിദ്യാർത്ഥികൾ തുടർ വിദ്യാഭ്യാസത്തിനായി കൂടുതലും പോകാറുള്ളത് ഇപ്പോഴത്തെ സമയം അതായത് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ അങ്ങോട്ടേക്കാണ് കാരണം ജനങ്ങൾ ചിന്തിക്കുന്നതിനുമപ്പുറം സാലറി അവിടെയുണ്ട് ഏറ്റവും കുറഞ്ഞ ശമ്പളം അവിടെയാദ്യം നൽകുന്നത് ഒരു ലക്ഷം രൂപയാണ് അത്യാവശ്യം ചെയ്യാനറിയുന്ന മേഖലകളിൽ അവർക്ക് ലഭിക്കുന്ന തുക മൂന്ന് ലക്ഷത്തോളം വരും